പാട്ടു പാടുക എന്നത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കഴിവല്ല അതു ദൈവത്തിൻ്റെ പ്രത്യേക ഒരു വരമാണ് അതുകൊണ്ടു തന്നെ നമുക്കു പാടാൻ കഴിവുണ്ടെന്നു തിരിച്ചറിയുന്ന നിമിഷത്തിൽ നമ്മളെവിടെ നിന്നാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്കു പാടാൻ സാധിക്കും നമുക്ക് ഇപ്പം എന്തെങ്കിലും കഴിവുണ്ടെന്നു നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ നമ്മളതിനെ ഒരിക്കലും തഴയരുത് വീട്ടിലെ സാഹചര്യമോ മറ്റെന്താണെങ്കിലും നമ്മൾ നമ്മുടെ കഴിവുകളെ നമ്മൾ മാത്രമേ ഉയർത്തി കൊണ്ടു വരാൻ സാധിക്കത്തുള്ളൂ നമുക്കു പിന്നിൽ നിന്ന് ആര് എന്തു സപ്പോട്ട് തന്നാലും നമുക്കൊരിക്കലും നമ്മുടെ കഴിവുക ളെ വളർത്താൻ പറ്റില്ല നമ്മൾ തന്നെ വിചാരിക്കണം നമുക്കതു പാടണം നമുക്കത് പാടി എടുത്തേ പറ്റു അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും പാടാം പറ്റും പാടുമ്പം നമ്മളിപ്പം തുടക്കത്തിലെ പാടുമ്പം നമ്മൾ കെ ജെ യേശുദാസോ ചിത്രയൊന്നുമാകില്ല അപ്പം നമ്മൾ നമ്മുടെ ശബ്ദത്തെ നമ്മുടേതായ രീതിയിൽ കൊണ്ടു വന്ന് അങ്ങനെ പാടണം അതായത് ഇപ്പോൾ പാടാൻ കഴിവുണ്ടെന്നു മനസ്സിലാകുകയാണെങ്കിൽ നമ്മൾ ഒരു പാട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കുക അതിനൊത്തു പാടുക ആദ്യമൊക്കെ കുളമായിരിക്കും എന്നാലും പിന്നെയും പിന്നെയും പാടി പാടി അതിനൊപ്പം ചേർന്നു ലയിച്ചു പാടുക അതുപോലെ തന്നെ പാട്ടു പാടുന്ന ആൾ ഒരിക്കലും തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കാതെ ഇരിക്കുക കാരണം തണുപ്പ് ചെല്ലുന്തോറും നമ്മുടെ തൊണ്ടയിലെ ആ ഒരു പ്യുവർ സൗണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കു തണുത്ത ഭക്ഷണങ്ങൾ പൊതുവെ ഒഴിവാക്കുക അതുപോലെ തന്നെ നല്ല വോയിസ് റെസ്റ്റ് കൊടുക്കുക ഉറക്കെ ശബ്ദം വെച്ചു പാടുക അലറുക അങ്ങനെയൊന്നും ചെയ്യരുത് എപ്പോഴും നമ്മൾ സൗമ്യമായിട്ടിരിക്കണം അതുപോലെ തന്നെ പാട്ടു പാടുന്നതിനു മുൻപേ തൊണ്ടക്കു നല്ല ചൂടു വെള്ളം കൊടുക്കുന്നതു നല്ലതായിരിക്കും കാരണം ചൂടു വെള്ളം കുടിക്കുന്തോറും നമുക്കൊരു ശബ്ദത്തിനൊരു കുളിർമ ലഭിക്കും നമുക്കതു പറയാം നന്നായിട്ട് കുറച്ചു കൂടി എഫക്റ്റീവായിട്ട് പാടാൻ പറ്റും അതുപോലെ തന്നെ നമുക്കു പാട്ടു പാടുന്നത് ഒരിക്കലും തടയരുത് നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മളെല്ലാം എന്തായാലും ലക്ഷ്യത്തിലെത്തി ചേരുക തന്നെ ചെയ്യും